എൻ്റെ ശക്തിയെന്ന് പറയുന്നത് സ്മൈൽ തന്നെയാണ് ഞാനെവിടെ പോയാലും ചിരിച്ചു കൊണ്ടേ കാര്യങ്ങളെ നേരിടാറുള്ളു ബലഹീനത എന്ന് പറയുന്നത് എനിക്ക് പേടി വെള്ളത്തിൽ ചാടാൻ പേടി പിന്നെ കുറേ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഒരു ഷൈ ആയി അനുഭവപ്പെടുക അത്തരത്തിലുള്ള ബലഹീനതയാണ് കൂടുതലായിട്ടും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളതും അതുതന്നെയാണ് എൻ്റെ ബലഹീനതയും എൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് കൂടെ എന്തിനും സപ്പോർട്ട് ആയി നിൽക്കുന്ന ഹസ്ബൻഡും പിന്നെ എൻ്റെ സ്മൈലും ഞാന് ഏറ്റവും കൂടുതൽ എല്ലാവരോടും സ്മൈൽ ചെയ്തിട്ടാണ് എല്ലാ കാര്യവും ഇടപെടാറും എല്ലാ കാര്യ കാര്യങ്ങളും ഒത്തു തീർപ്പാക്കാനും വീട്ടിലാണെങ്കിലും വെളിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഒരു ചെറു പുഞ്ചിരിയോടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതിനെ സൊളുറ്റ് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത് ഇതുവഴിയാണ് ചിരി സ്മൈൽ എപ്പോഴും എൻ്റെ ഫേസിലൊരു സ്മൈൽ ഉണ്ടാവും ഒരുപാട് തവണ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും പ്രതീക്ഷക്ക് പ്രതീക്ഷ നൽകുന്നൊരു നൽകുന്നൊരു വാചകം ആണ് എല്ലാം ശരിയാകും എല്ലാം ശരിയാകും നാളെയെല്ലാം ശരിയാകും എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് അസൂയ അസൂയക്കാ അസൂയകൊണ്ട് പല ആൾക്കാരും നമ്മളെ പറ്റിയിട്ട് അതും ഇതുമൊക്കെ പറയുമെങ്കിലും നമുക്കത് നമ്മുടെ ബലഹീനതയായി കൊണ്ടുനടക്കാണ്ട് നമ്മൾ അവർ അസൂയയായി തോന്നിക്കാൻ കാരണം നമ്മളിൽ അവരിൽ നമ്മൾ നം നമുക്കെന്തെങ്കിലും അവരിൽ വ്യത്യസ്തമായിട്ട് നമ്മളിൽ എന്തോ ഒന്നുണ്ട് അത് അവർ അവരെക്കൊണ്ട് ചിന്തിപ്പിക്കുന്നതു കൊണ്ടാണ് നമുക്ക് നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു അസൂയ തോന്നാനും കാരണമാകുന്നത് പിന്നെ കൂടുതലാൾക്കാരും മുഖംമൂടി ധരിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളതൊന്നും വകവയ്ക്കാണ്ട് നമ്മളൊരു ചെറിയ ഒരു പുഞ്ചിരിയോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്മൈൽ ചെയ്ത് വളരെ ലാഘവത്തോടു കൂടി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് അതിൽ ഡിപ്രെഷൻ അടിച്ച് പോവാണ്ട് നല്ലൊരു നല്ലൊരു ചിരിച്ച മുഖത്തോടുകൂടി എല്ലാ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു ഡിസിഷൻ ആയിട്ട് നമുക്കെടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ ഉള്ളിലെത്ര സങ്കടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും പുറമെ ഒരു ചി ചിരിയിലെല്ലാം ഒളിപ്പിച്ചു ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മുടെ മോട്ടിവേറ്റർ നമ്മൾ തന്നെയാണെന്നും നമ്മുടെ ആ ചിരിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എനിക്ക് മറ്റു മറ്റു ആൾക്കാരെ ഒന്നും ഇത് മറ്റുള്ള ആൾക്കാരെ ഒന്നും എനിക്ക് അത്രത്തോളം എന്റെ ക് എൻ്റെ ലൈഫിലോട്ട് അധികമായിട്ട് പ്രവേശിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചിരിയിലൂടെ മുന്നോട്ട് പോവാം നമ്മുടെ ലൈഫ് ചിരിയിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം പറ്റും എന്നൊരു നല്ലൊരു വിശ്വാസത്തോടു കൂടി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് പറ്റും അതുകൊണ്ടുതന്നെ ഒരു എൻ്റെ ഏറ്റവും വലിയ ശക്തിയായി ഞാൻ കണക്കാണുന്നത് ഒന്നാമത് എൻ്റെ ഒരു ചിരിയാണ് എൻ്റെ നേച്ചർ എൻ്റെ സ്വഭാവം ഒക്കെയാണ് മറ്റൊന്നുകൂടി എൻ്റെ ഹസ്ബൻ്റിനുകൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം അവർ അവരില്ലെങ്കിൽ നമ്മുടെ ഒരു ഫില്ലർ എന്നൊക്കെ പറയാം ജീവിതത്തിൽ ഒരു എന്താണ് പറയുക ജീവിതത്തിലെ ഒരു ഫില്ലർ ആണ് എൻ്റെ ഹസ്ബൻ്റ് കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഏറ്റവും നല്ല ഒരു പ്ലസ് പോയിന്റ് ആണ് കൂടുതൽ നമുക്ക് അവർ നമ്മളെ മോട്ടിവേറ്റ് നമ്മളെ മോട്ടിവേഷൻ ചെയ്യാനും ഏത് കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കാനും അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി നമ്മുടെ ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താനും സ്ത്രീ എന്ന് എന്ന് നമ്മുടെ അടിച്ചമർത്തുന്നതിന് ഉപരി നമുക്കൊരു ഫ്രീഡം ഫ്രീഡം ഫ്രീഡം മീൻസ് നമ്മൾ ഒരു വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണ്ട് ലൈഫിൽ നമ്മുടെ ലൈഫും ഇതൊക്കെയാണ് ജോലി ചെയ്ത് ജീവിക്കാനും നമ്മുടെ ഒരു കൾച്ചറിന് പറ്റിയ ഒരു ജോലി അങ്ങനെ വീട്ടിൽ തന്നെ ഒതുക്കി വയ്ക്കാണ്ട് നമ്മുടെ പുറമെ ഫ്രീ ബേർഡ് ആയിട്ട് പറക്കാം ഫ്രീ ബേർഡ് ആയിട്ട് നിങ്ങൾക്കും പറ്റും എല്ലാം ചെയ്യും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മോട്ടിവേഷൻ തരുന്നത് കൊണ്ടും കൂടിയാണ് എനിക്ക് ഈ ഈ ഈ ഒരു ഈ ഒരു ലൈഫ് മുന്നോട്ട് നന്നായി കൊണ്ടുപോവാൻ പറ്റുന്നത് അതുപോലെതന്നെ വീട്ടിലെ ഓരോ മെമ്പേഴ്സും ഓരോ കാര്യത്തിനായാലും എന്നെ ഇപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരു ഡിസപ്പോയിന്മെൻ്റ് ചെയ്യാണ്ട് എല്ലാം ചെയ്യാൻ പറ്റും നിനക്കത് ചെയ്യാൻ പറ്റും നേടാൻ പറ്റും നല്ലൊരു മോട്ടിവേഷൻ എനിക്കെപ്പോഴും തരാറുള്ളതുകൊണ്ടും നല്ലൊരു ഫാമിലി ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ടും നമ്മുടെ ശക്തിതന്നെയാണ് എന്ന് അവരും നമ്മുടെ ശക്തിയാണ് എന്ന് ഈ അവസരത്തിൽ എനിക്ക് പറയേണ്ടി പറയേണ്ടി വരുന്നു കാരണം ബലഹീനത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വിമ്മിങ് ചെയ്യാൻ താൽപര്യം ഉണ്ട് പക്ഷെ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാനതിലോട്ട് അങ്ങനെ കടക്കുന്നില്ല പിന്നെ ആൾക്കാർ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരെ മുൻപിലെനിക്ക് സ്റ്റേജ് ഫിയർ ചെയ്യാൻ ഭയങ്കര ഒരു പേടിയാ പേടിയായിരുന്നു മുൻപ് പക്ഷെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് മാറി മാറി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചെങ്കിൽ പ്രൊഫഷൻ ആയാലും അത്തരത്തിലുള്ളൊരു പ്രൊഫഷൻ ആണ് എന്റേത് അതുകൊണ്ടുതന്നെ നമ്മൾ ആ ഒരു ഒരു ഫിയർ ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു എന്തോ ഒന്ന് എനിക്ക് എന്നെയെന്നെ ആൾക്കാർ നോക്കുന്നോ തുറിച്ച് നോക്കുന്നോ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ബലഹീനത ഉണ്ടായതുകൊണ്ടുതന്നെ എനിക്ക് അത്തരത്തിലുള്ളൊരു അതെൻ്റെ ബലഹീനതയായിട്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഇൻ ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അതുതന്നെ അതുപോലെതന്നെ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഭയങ്കര ഭയങ്കരായിട്ട് ഇപ്പോൾ മരത്തിൽ കയറാൻ പറ്റുക അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ജന്മനാ അങ്ങനത്തെയൊരു കഴിവൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ പിന്നെ പിന്നീടാണ് കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ചെയ്ത് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് മരത്തിൽ കയറുക ചാടുക ഓടുക എന്നൊക്കെ പറയാനെനിക്ക് ഭയങ്കര പേടിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യങ്ങളിലൊന്നാണ് അതെൻ്റെ ബലഹീനതയായി ഞാൻ കണക്കാക്കുന്നു ബാക്കി ബാക്കിയുള്ളവരെങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ലല്ലോ അതുകൊണ്ട് അതുപോലെതന്നെ എൻ്റെ ശക്തിയെന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ മക്കളാണ് അവർ എന്നെ ഇൻ ഇതുവരെയായിട്ടും ഇന്നേ വരെ ഈ ദിവസം വരെ എന്നെ ഇതുവരെ ആയിട്ടും എൻ്റെ മനസ്സ് നോവിക്കാനോ എൻ്റെ മനസ്സ് നോവുന്ന മാതിരി ഒരു ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളെയും നേരിടുന്നതും അതുതന്നെയാണ് എൻ്റെ ശക്തിയും അതുപോലെതന്നെ എൻ്റെ ഹസ്ബൻറ്റും നല്ല സപ്പോർട്ടീവ് ആണ്